ഞങ്ങളുടെ സ്ഥലത്ത് ഒര് പിന്നെ ഇങ്ങനെ വാഴ വാഴ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എത്തിക്കാൻ ഭയങ്കര വിഷമാണ് വഴി സൗകര്യം എല്ലാം കുറവാണ് പിന്നെ വണ്ടികളൊന്നും വിളിച്ചാൽ അങ്ങനെ വരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ട് ജനങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് പിന്നെ മഴക്കാലത്തൊക്കെ പറയുകയേ വേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കൃഷി സാധനങ്ങളൊക്കെ നശിച്ചുപോകും അതുകൊണ്ട് അതിനൊക്കെ അതുകൊണ്ട് കൃഷി ചെയ്യുന്നതെല്ലാം വളരെ കുറവാണ് സൗകര്യക്കുറവുകൊണ്ട്